മൂപ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇരുപത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുപ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അഞ്ച് എട്ട് രണ്ടായിരത്തി പതിനാല്